എൻറ്റ വീട്ടിലടുക്കളയിൽ മിക്സീണ്ട് ഗ്രൈൻഡറ്ണ്ട് ഇൻഡക്ഷൻ കുക്കറ്ണ്ട് ഓവന്ണ്ട് ഗ്യാസ് സിലിണ്ടർ അങ്ങനെ പലപല പുതിയ പുതിയ എലക്ട്രിക്ക് എലക്ട്രോണിക്ക്സ് എലക്ട്രിക്കൽ ഉപകാരണങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് വളരെ ഉപയോഗമാണ് നമ്മുടെ ഭയങ്കര ഉപയോഗമാണ് ആ എലക്ട്രിക്ക് എലക്ട്രിക്ക് ഉപയോഗം ഉപകരണങ്ങളുമുണ്ട് കാരണം നമ്മുടെ സമയം ഭയങ്കരമായിട്ട് സമയം പോവും നഷ്ടപെടുന്നതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുന്നു മീൻസ് അധികം സമയമെടുക്കുന്നില്ല നമ്മൾ ഭയങ്കര എല്ലാം വളരെ പെട്ടന്നാണ് ഈ ഉപകാരണങ്ങളുള്ളോണ്ട്ന്നെ നമുക്ക് എല്ലാം ഭയങ്കര പെട്ടന്ന് നമ്മുടെ സമയം നഷ്ടമാകാണ്ട് തന്നെ എല്ലാം വളരെ വേഗം ചെയ്ത തീർക്കാവുന്നതേ ഉള്ളൂ ഈ ഉപകാരണങ്ങളക്കെയുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം വിലയുണ്ട് മീൻസ് പൈസേണ്ട് ഇത് മേടിക്കാനക്കെ പക്ഷേ ഇത് ഭയ് നമുക്കെല്ലാവർക്കും ഭയങ്കര ഉപകാര പ്രദമാണ് നമുക്ക് നല്ല പോലെ ഉപയോഗം നല്ല രീതീയിൽ ഉപയോഗിക്കാൻ നമ്മൾ നല്ല രീതീയിൽ സഹായിക്കുന്ന ചില ചില ഉപകാരണങ്ങളാണിതക്കെ എന്താ പറയാ ഇപ്പം മിക്സ് മിക്സറക്കെ നമുക്ക് ഓരോ സാധനങ്ങളരക്കാനും ഒക്കെ ഉപയോഗിക്കാം ഈ മിക്സറിൻ്റെ സമയം മിക്സറിപ്പ വന്നതാണ് പ പണ്ടത്തെ കാലത്ത് അമ്മിക്കല്ലിൽ അരച്ചിട്ടാണ് ഓരോരുത്തരും അമ്മി അമ്മിക്കല്ലിൽ ആണ് അരക്കാറ് പലതും ഇപ്പം ചമ്മന്തി അല്ലെങ്കിൽ തേങ്ങാ അരക്കുന്നു മുളകരക്കുന്നു അങ്ങനങ്ങനെ പല കാര്യങ്ങളക്കെ എന്താ പറയാ അമ്മിക്കല്ലിലാണ് അരച്ചുണ്ടാക്കിയത് അതിൽ അതിൽ നിന്ന് അമ്മിക്കല്ലൊക്കെ അരക്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അരച്ച് നമ്മുടെ ദേഹം മീൻസ് ശരീരമെല്ലാം അനങ്ങി അങ്ങനെ എന്താ പറയാ ഭയങ്കര കയ്യ് ചിലപ്പോൾ കയ്യ് ചതയാം അതിൻ്റെടേൽ അതിൻറ്റെടേൽ മുറിയാവാം അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അമ്മിക്കല്ലോണ്ടരക്കുമ്പോൾ നമുക്കുണ്ടാവാം അതേപോലിപ്പം ഗ്രൈൻഡറ് പണ്ട് ഉഴുന്ന് മാവ് ഇങ്ങനെ ഇരുന്ന് ഉഴുന്ന് കല്ലിൽ ഇരുന്നരക്കണായിരുന്ന് ഈ അമ്മിക്കല്ല് പോലെ തന്നെ വേറൊരു സംഭവമാണ് ഉഴുന്ന് കല്ല് അതിലിരുന്ന് അങ്ങനെ ചുറ്റി ചുറ്റി അരക്കാണായിരുന്നു വല്ല മാവ് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണങ്കിൽ ഇപ്പം പക്ഷേ വളരെ എളുപ്പമായി ഗ്രൈൻഡർ ഉള്ളോണ്ട് പിന്നെ ഗ്രാസ് ഗ്യാസ് സിലിണ്ടർ അതിന് പകരം പണ്ട് അടുപ്പായിരുന്നു അടുപ്പിലാണല്ലോ കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നത് അടുപ്പ് കത്തിക്കാൻ എളുപ്പായിരുന്നില്ല വിറക് വിറക് വെച്ചിട്ട് വിറകും വൈക്കോലും അങ്ങനെ എന്താ പറയാ പല പല കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അടുപ്പിലാണ് നമ്മളുണ്ടാക്കാ പക്ഷേ അടുപ്പിന്ന് വരുന്ന പുക നമുക്ക് ശ്വസിക്കാൻ പാടില്ല പിന്നെ അങ്ങനെ അതേപോലെ ഓവൻ അത് പണ്ടത്തെ പണ്ടത്തെ ഇപ്പം ഓവനൊക്കെ ഉപയോഗിക്കണെന്തിനാ നമുക്കെന്തെങ്കിലും തണുത്തതൊക്കെ ചൂടാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ്ന്ന്ക്കെ പറയുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളും എടുത്ത് വെയ്ക്കാൻ സ്റ്റോറ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും സ്റ്റോറേജിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം ഇന്നിപ്പോൾ ഇന്നിപ്പം തീരുന്നത് തീരാത്തത് നമുക്ക് വേണമെങ്കിൽ നാളേക്ക് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വച്ച് കഴിഞ്ഞാൽ അത് പക്ഷേ പണ്ടത്തെ കാലത്തത് നടക്കുവായിരുന്നില്ല അത് കേട് വന്ന് പോവേയിരിക്കും ചിലപ്പം അപ്പോൾ അത് കൊണ്ട് തന്നെ ഭയങ്കര യൂസ് ഫുള്ളാണ് ഭയങ്കര ഉപകാര ഉപകാരപ്രദമാണ് ഈ എലക്ട്രിക്കൽ ഉപകരണങ്ങളക്കെ പണ്ടത്തെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല അവർക്ക് അതിൻറ്റേതായിട്ടുള്ള നല്ല ഇതുണ്ടായിരുന്നു പക്ഷേ അതിൻറ്റേതായിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളുമുണ്ടായിരുന്നു അവരുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു